വീട്ടു മുറ്റത്തു സ്ഥലമുള്ളവർ നാടൻ കോഴീനെ വളർത്തുന്നതാണ് നല്ലതു നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് ഔഷധ ഗുണമുണ്ട് അതു ചുമയൊക്കെ വരുമ്പോഴത്തേക്കും വാട്ടി അതിൻ്റെ അകത്ത് കുരുമുളകു പൊടി ചേർത്തു കഴിക്കാറുണ്ട് അതുപോലെതന്നെ ബ്രോയിലർ കോഴീനെ വളർത്താം കാടകോഴീനെ വളർത്താം കാടക്കോഴിയുടെ ആണെങ്കിലും ഇറച്ചിക്കും മുട്ടയ്ക്കും നല്ല നാട്ടിൽ നല്ല ഡിമാൻ്റുള്ളതാണ് നമ്മൾ പിന്നെ ബ്രോയിലർ കോഴീനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ വളർത്തുന്നതാണ് ഏറ്റവും കൂടുതലായിട്ടു നല്ലത് പിന്നെ കോഴികൾ ഓരോ രീതി അനുസരിച്ച് നമ്മൾ തരം തിരിക്കുന്നുണ്ട് പിന്നെ നാടൻ കോഴി ബോയിലർ കോഴി പിന്നെ കാടക്കോഴി കാടക്കോഴിയുടെ മുട്ട ആണെങ്കിലും ഒത്തിരി ഔഷധ ഗുണം ഉള്ളതാണ് കാടക്കോഴിയുടെ ഇറച്ചിയാണെങ്കിലും നല്ല നാട്ടിൽ കടകളിൽ നല്ല ഡിമാൻ്റുള്ളതാണ് പിന്നെ വീടും പരിസരത്തും കൊത്തിപ്പെറുക്കിയൊക്കെ ആണെങ്കിലും നാടൻ കോഴി കൊത്തിപ്പെറുക്കിയെടുത്ത് അവർ തന്നെ ആഹാരം കണ്ടെത്തുന്നതാണ് ബോയിലർ കോഴിക്കാണ് നമ്മൾ സമയാ സമയങ്ങളിൽ ആഹാരവും വെള്ളവും കൊടുത്തു കൂടുകളിലാണ് വളർത്തുന്നത് അതുപോലെ കാടക്കോഴി നെ ആണെങ്കിലും കൂടുകളിലാണ് വളർത്തുന്നത് സമയാ സമയങ്ങളിൽ അതിന് ആഹാരം കൊടുക്കാറുണ്ട് അതിൻ്റെ രീ എന്നാണ് നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി വാക്സിനേഷൻ എടുക്കാറുണ്ട് എടുക്കണം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ അതിനു കൂടുതൽ കൊടുക്കണം പിന്നേ അതുപോലെതന്നെ അവർ നാടൻ കോഴി ആകുമ്പോഴത്തേക്കും കാടക്കോഴിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് നാടൻകോഴി കോഴിയിറച്ചിക്കും അതിൻ്റെ മുട്ടയും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് മെഡിസിനായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കാടക്കോഴിയുടെ മുട്ടയും സാധനങ്ങളും നമ്മളങ്ങനെ മുട്ടയും അതിൻ്റെ ഔഷധം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെതന്നെ അതിൻ്റെ ഇറച്ചിക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ബോയിലർ കോഴിയണേ കൂടുതലും ഇറച്ചിക്കാണ് ഉപയോഗിക്കുന്നത് അതു നമുക്ക് മുട്ട ഇത്ര ഒരു മുപ്പത്തൊന്നു ദിവസം കഴിയുമ്പോഴത്തേക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെതന്നെ അത് നമ്മൾ കൂടുകളിലാണ് വളർത്തുന്നത് കൂടുകൾ ദിവസവും നമ്മൾ ദിവസവും എല്ലാ ദിവസവും ക്ളീൻ ചെയ്തു വേണം ഉപയോഗിക്കാനായിട്ട് അതിന് നമുക്ക് ഉപയോഗപ്പെടുത്തുമ്പോഴത്തേക്കും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്കൊരു വരുമാനമായിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് പിന്നാ കോഴികൾ എന്നും നമ്മൾക്കൊരു ഒരു കോഴികളെ വളർത്തുമ്പോൾ നമുക്ക് മാനസികമായാൽ ഒരു ഉല്ലാസത്തിനും നമ്മുടെ ഒരു സമയം ഇതിനും പോകുന്നത് നമുക്ക് ഉപയോഗിക്കും പക്ഷെ നമുക്കിതിൽ നിന്നും നമുക്കോരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കോഴിയുടെ ഇറച്ചിയിൽ നിന്നു നമുക്കൊരു വരുമാനം ലഭിക്കും മുട്ടയിൽ നിന്നും നമുക്കൊരു വരുമാനം ലഭിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കോഴികളെ പിന്നെ പിന്നെ ഭംഗിക്ക് വളർത്തുന്ന കോഴികളുണ്ട് ഗിരിരാജൻ എന്നറിയപ്പെടുന്നൊരു കൊഴിയുണ്ട് അതും നമ്മൾ ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നേ അങ്ങനെ നിത്യോപയോഗ നമ്മള ജീവിതത്തിൻ്റെ ഒരു ഒരു ഉൾക്കൊള്ളാൻ നിത്യോപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടു നമുക്ക് കോഴീനെ വളർത്താം കോഴി നമ്മുടെ വീട്ടു മുറ്റത്തുള്ളത് നമുക്കൊരു ഐശ്വര്യമായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് കോഴിയുടെ ഓരോ ഓ ഓരോ വളർച്ചാഘട്ടത്തിലും നമ്മൾ എപ്പോഴും അതിനു സംരക്ഷണം നൽകണം എങ്കിൽ മാത്രമേ അതു മുന്നോട്ടു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ